തിരുവനന്തപുരം ജില്ലയിൽ ജനപ്രിയമായ ഒരു വിനോദ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് നമ്മുടെ വേളി ടൂറിസ്റ്റ് വില്ലേജ് ആണ് ഞാൻ പറയുന്നത് വെച്ച് വേളി ടൂറിസ്റ്റ് വില്ലേജ് അപ്പം വേളി ടൂറിസ്റ്റ് വില്ലേജിൻ്റെ കാര്യം പറയുവാണെങ്കിൽ അവിടെ ഒത്തിരി നമുക്ക് അഡ്വഞ്ചറായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒത്തിരി ഉണ്ട് അവിടെ ബോട്ടിങ്ങ് ഉണ്ട് അപ്പം ബോട്ടിങ്ങ് തന്നെ ഒരു നമുക്ക് നമ്മളെ ഫാമിലിയായിട്ട് ഒരു നാല് പേർ പോകുന്നതല്ലാതെ ബാക്കിയുള്ളവരുടെ കൂടെ പോകാം അതായത് പുറത്ത് നിന്ന് വന്നവരുടെ കൂടെ പോകാൻ പറ്റുന്ന വലിയ ബോട്ടിങ്ങിൻ്റെ സെറ്റപ്പും ഉണ്ട് അപ്പം അങ്ങനെ വരുമ്പഴത്തേക്കും നമുക്ക് അവരുമായിട്ട് നല്ല വണ്ണം സംസാരിക്കാനും ഇടപഴകാനും ഒക്കെ പറ്റും അപ്പോൾ അതു പോലെ തന്നെ ബോട്ടിങ്ങ് പിന്നെ ഫ്ലോട്ടിങ്ങ് ബ്രിഡ്ജ് ഉണ്ട് എന്ന് പറയുമ്പോൾ വെള്ളത്തിൻ്റെ അവിടുത്തെ വേളി കായലിൻ്റെ മണ്ടക്ക് ഇങ്ങനെ പൊന്തി കിടക്കുന്ന ഒരു പലമാണത് അപ്പം അതിലൂടെ നടക്കുമ്പോൾ ഒരു രസമാണ് അതിലൂടെ നടക്കാനും അതു പോലെ തന്നെ അതിലൂടെ നടക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ വളരെ മനോഹരമായ കാഴ്ചകളാ ണ് പിന്നെ ഉള്ളത് കുട്ടികൾക്ക് പാർക്കുണ്ട് പാർക്കെന്ന് പറയുമ്പോൾ അവിടെ കുട്ടികളെല്ലാവരും വന്ന് ഒരുമിച്ചിരുന്നു കളിക്കുന്നു അവർ അവരുടെ ഒരു ലോകം തന്നെയാണ് ആ ഒരു പാർക്കിൽ ആ അതു പോലെ സൈക്കിളിങ് ഉണ്ട് സൈക്കിളിങ് വലിയവർക്കും കുട്ടികൾക്കുമായിട്ട് സൈക്കിളിങ്ങും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അവിടെ പിന്നെ ഇത് ട്രെയിനൊണ്ട് ട്രെയിനിൽ നമുക്ക് കൊറച്ച് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പോയി കാണാനൊക്കെ പറ്റും നമ്മുടെ ഫാമിലിയായിട്ട് നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും അതു പോലെ അവിടെ വന്നിരിക്കുന്ന ബാക്കിയുള്ള വ്യക്തികളുമായിട്ടും നമുക്ക് സംസാരിക്കാനും കാര്യങ്ങൾ പങ്ക് വയ്ക്കാനും ഒരുമിച്ചിരുന്ന് ആ ഒരു പ്രകൃതി ഭംഗി കാണാനും ഒക്കെ നമുക്ക് ഈ ഒരു ബോട്ട് ട്രെയിനിൽ കൂടെ പോകുന്ന വഴിയും നമുക്ക് കാണാനും സംസാരിക്കാനും ഒക്കൊള്ളൊരു വഴി ഒരുക്കി തന്നിട്ടുണ്ട് അതു പോലെ പിന്നെ എന്താണ് പിന്നെ അവിടെ നമുക്ക് ഫ്ളോട്ടിങ് ബ്രിഡ്ജ് പോലെ തന്നെ അവിടെ ഫ്ളോട്ടിങ് റെസ്റ്റോറൻ്റുമുണ്ട് അപ്പം എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് ഉണ്ടാകുന്നൊരു ഉള്ളൊരു ഫ്ളോട്ടിങ് റെസ്റ്റോറൻ്റ് ആണത് അപ്പോൾ ഒരു വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കാം അതൊക്കെ നമ്മൾ പുറത്ത് ഓരോ വീഡിയോയിലിങ്ങനെ കാണുകയും കേൾക്കുകയുമൊക്കെ ചെയ്തിട്ടുള്ളു അപ്പം ഇവിടുത്തെ സാധാരണ ആൾക്കാർക്ക് അതൊരു നല്ലൊരു എക്സ്പീരിയൻസാണ് ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി വെള്ളത്തിൻ്റെ മുകളിലിരുന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കുക എന്നൊക്കെ പറയുന്നത് അതു പോലെ നല്ല ഗാർഡനിങ്ങ് ലാൻഡ്സ്കേപ്പും കാര്യങ്ങളുമൊക്കെ അവിടെ ഉണ്ട് പിക്നിക്ക് സ്പോട് ഉണ്ട് നമുക്ക് ഫാമിലി ആയിട്ട് പോയി ഇരിക്കാം ഫ്രണ്ട്സ് ആയിട്ട് പോയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ പാട്നേഴ്സായിട്ട് പോയിരിക്കാൻ പറ്റുന്ന നല്ല പിക്ക്നിക്ക് സ്പോട്ടുകളുണ്ട് അവിടെ നമുക്ക് അതു പോലെ ആകെ കുറച്ച് എത്രയോ നൂറു രൂപക്കകത്തെങ്ങാണ്ടേ നമുക്ക് ടിക്കറ്റ് ചാർജ്ജും വരുന്നുള്ളൂ അപ്പോൾ എല്ലാവരുമായിട്ട് നമുക്ക് ഒരുമിച്ച് സന്തോഷിച്ച് നിൽക്കാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ് അതു പോലെ ഇവിടെ നമുക്ക് ഫിഷിങ്ങ് ചെയ്യാനൊരു സ്ഥലം ഉണ്ട് അപ്പോൾ കൂടുതലും ആണുങ്ങളാണ് ഫിഷിങ്ങിന് താൽപ്പര്യം കാണിക്കുന്നത് അപ്പം ആണുങ്ങൾക്ക് അവർക്ക് മെൻസ് അവർക്കെല്ലാവർക്കും കൂടെ പോയി നിന്ന് ഫിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ടൈം ഒറ്റക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫിഷിങ് സ്പോട്ടും അവിടെ ഉണ്ട് അതു പോലെ നമുക്ക് ബേഡ് വാച്ചിംഗ് ഉണ്ട് കുട്ടികൾക്കൊക്കെ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും പക്ഷികളെ കാണുന്നതും അതിങ്ങനെ ഓടി നടക്കുന്നതും പറക്കുന്നതും ഒക്കെ കാണുന്നതും അതിൻ്റെ സൗണ്ട് കേൾക്കുന്നതും ഒക്കെ ഒത്തിരി ഇഷ്ടമാണത് കുട്ടികൾക്ക് പഠിക്കാനും ഇന്ന പക്ഷിയുടെ ശബ്ദമാണിത് ഇതാണ് ഈ പക്ഷി ഇതാണ് എന്താണ് ഈ പക്ഷി ഇതാണ് തത്ത ഇത് എന്നും പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ പണ്ടത്തെ പോലെ പാടും പാടവും വയലും ഒന്നും ഇപ്പം ഇല്ലല്ലോ അപ്പം പിന്നെ തത്തയൊന്നും അങ്ങനെ അങ്ങനെ അധികം കുട്ടികളൊന്നും കാണത്തില്ല കാണുന്നുണ്ടാവില്ല അപ്പം ബേഡ് വാച്ചിങ്ങ് പറഞ്ഞ ഒരു ഒരു സെക്ഷൻ തന്നെ അവിടെ ഒരു സൈഡ് ഒരു സ്പോട്ട് തന്നെ അവിടെ ഉണ്ട് അപ്പം അവിടെ ചെന്ന് നിന്ന് കുട്ടികൾക്ക് ബേഡ്വാ വാച്ചിങ്ങ് കാണാനും ഒക്കെ ഒരു സാഹചര്യം ഈ ഒരു വേളി ടൂറിസ്റ്റ് വില്ലേജ് വഴി നമുക്ക് ലഭിക്കുന്നതാണ് അപ്പം എല്ലാവർക്കും ഒത്തു ചേരാനും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും ഒരു നല്ല ഒരു ഈവനിങ്ങ് പങ്ക് വയ്ക്കാനും ഒക്കെ പറ്റിയൊരു സ്ഥലം ട്രിവാൻഡ്രത്ത് ഞാൻ നോക്കുവാണെങ്കിൽ ടൂറിസ്റ്റ് വില്ലേജ് നമ്മളെ വേളി ടൂറിസ്റ്റ് വില്ലേജ് തന്നെയാണ് നല്ലൊരു വിനോദ സ്ഥലമായി എനിക്ക് തോന്നുന്നത്